അഞ്ച് ഒന്ന് രണ്ടായിരത്തി പതിനേഴ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി പത്തൊൻപത് മൂന്ന് മൂന്ന് ഒന്ന് രണ്ടായിരത്തി പതിനെട്ട് ഒന്ന് ഒന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്